എൻ്റെ ഇപ്പോൾ നാട്ടിൽ ആർക്കെങ്ങും എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവമെന്ന് പറഞ്ഞാൽ കയ്യോ കാലോ ഒടിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ട്യോൾക്കെങ്കിലും കളിക്കുമ്പോഴും വീഴലുണ്ട് കുട്ടികൾ വീണിട്ട് കാലിന് ചെറിയ ചെറിയ വരഞ്ഞോ അല്ലേ ചെറുങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ മുഴപോലെ വന്നാലോ അങ്ങനെ ചെറുങ്ങനെ എല്ലാ ആയെങ്കിൽ നമ്മൾ ഡെറ്റോൾ ഒഴിച്ചിട്ട് ആദ്യം തുടക്കും എന്നിട്ട് അതിനെ ബാൻഡേജ് ചെയ്ത് മരുന്ന് വെച്ച് ബാൻഡേജ് ഒട്ടിച്ചിട്ട് കൊടുക്കും അതേപോലെ അത് കുറഞ്ഞില്ല അതേപോലെ ഇനിയുമോ വീണിട്ട് കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ മുഴ ഇങ്ങനെന്നങ്ങ് വന്നാൽ കൊൺ ഇങ്ങനെ കുറച്ച് ഇതായാൽ വേദനയെല്ലാം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേദനയുടെ എണ്ണയോ അല്ലെങ്കിൽ പിന്നെ അയോഡെക്സോ അങ്ങനെ എന്തെങ്കിലും തേച്ച് പിടിപ്പിക്കലാന്ന് പതിവ് അത് തേച്ചിട്ടും കുറച്ച് ചൂട് ചൂട് വെക്കും നമ്മളിങ്ങനെ തുണിയിൽ തിളപ്പിച്ച വെള്ളം കുറച്ചെടുത്തിട്ട് ഇങ്ങനേ അതിനെ ഊതി ഊതി കാലിങ്ങനെ വെച്ച് രണ്ട് മൂന്ന് ദിവസം ചെയ്യും ആ മുഴ പോകുന്നില്ലയെന്നുണ്ടെങ്കിൽ വേദന കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കലാന്ന് പതിവ് കുട്ടികളെല്ലാം സാധാരണ ഇങ്ങനെ വീണിട്ട് ഇതാവല് ആകാറുണ്ട് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിക്ക് അതിൻ്റെടക്കൊരു കുഞ്ഞ് വീണായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം അവർ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ സമാധാനി പേടിക്കണ്ട ഒന്നും പറ്റിയിട്ടില്ല നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നടക്കുക ഓക്കേ അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അവരെ വീട്ടിൽ ആരും ഇല്ലാത്ത സാഹചര്യം ആണെങ്കിൽ നമ്മൾ വിളിച്ച് പാരൻസിനെ വിളിച്ച് അവരോട് കാര്യം പറഞ്ഞ് അവരെ അവരെ ഏൽപ്പിക്കുക അല്ലാത്ത പക്ഷം ഇപ്പം വീട്ടിൽ ആരെങ്ങും ഒറ്റക്കേ ഉണ്ടങ്കിൽ നമ്മൾ അടുത്തുള്ള ആരെങ്കിലും സഹായം ചോദിച്ച് അവരോട് സഹായം വാങ്ങി അവരെ കൂട്ടി പോകുന്നേക്കാളും മുൻപ് കയ്യൊക്കെ നല്ലവണ്ണം ഒടിഞ്ഞീനോ വേദന ഉണ്ടോ എന്ന് അവരെ സമാധാനിപ്പിച്ച് ഓട്ടോയോ എന്തെങ്കിലും വണ്ടിയോ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു പോവുക ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അതിലെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുന്നതിനേക്കാളും അവരെ വെള്ളം കുടിപ്പിക്കുക അങ്ങനെയെല്ലാം ചെയ്ത് ഫസ്റ്റ് എയ്ഡ് എന്നു പറഞ്ഞാൽ അത് തന്നെയാണ് കുറച്ച് വെള്ളം കുടിപ്പിക്കുക അവരെ വേദനയുണ്ടെന്ന സ്ഥലത്തേക്ക് ഒന്ന് അമർത്തി പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് കൂടുതലും അതിന് ബലം കൊടുക്കരുത് ആ ഒടിഞ്ഞ കാലിനോ കൈക്കൊ ബലം കൊടുക്കാൻ പാടില്ല പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയാൽ ഡോക്ടർ എക്സ് റേ എടുക്കണോ എക്സ് റേ എടുക്കാൻ പറഞ്ഞില്ല അവർ എന്ത് ചെയ്യുക എക്സ് റേ എടുക്കുക അത് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചുറ്റിക്കെട്ടി പ്ലാസ്റ്ററെല്ലാം ഇട്ട് അതിനെ ചുറ്റികെട്ടി വിടും അതിനു അങ്ങനെ തന്നെ ആ കെട്ടിയ കാലോ കൈക്കായാലും ആ കെട്ടിയ ഭാഗത്ത് നീ ചിലപ്പം നീരെല്ലാം വരാൻ ചാൻസുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടറെ പിന്നെയും കാണിക്കുക അല്ലെങ്കിൽ ആ കെട്ട് പ്ലാസ്റ്ററിട്ട ആ ഭാഗം പിന്നെ വെള്ളം കൊണ്ടു കൂട പിന്നെ കൂടുതൽ ഒടിവ് വരാത്ത പോലെ ശ്രദ്ധിക്കണം കാലിനെ എന്ന് പറഞ്ഞാൽ കാലിനെ ഒരു കലായാലും കയ്യായാലും ഒരു സ്ട്രൈറ്റ് ലെവലിൽ വെക്കുക അതിനെ തിരിച്ചു കൂട വളച്ചു കൂട അങ്ങനെയെല്ലാം എന്നുള്ളത് അത് നമ്മൾ കൂടുതൽ അതാണ് ശ്രദ്ധിക്കണ്ടത് ഈ കാലെല്ലാം കയ്യെല്ലാം ഒടിഞ്ഞാൽ നമ്മൾ കൂടുതൽ വളവ് വരാൻ ചാൻസുണ്ട് എന്ന് പറഞ്ഞാൽ ആ എല്ല് പൊട്ടി ഏത് സ്ഥലമെന്ന് അറിയില്ല അപ്പോൾ ആ സ്ഥലമെന്നറിയുമ്പോൾ ആ സ്ഥലം ചിലപ്പം വളവ് ഇങ്ങനെ ഇതാക്കാനുള്ള വളയാനുള്ള ചാൻസുണ്ട് അപ്പം ചെറിയ ക്രാക്കോ അങ്ങനെയൊന്നും പ്രശ്നമല്ലെങ്കിൽ ഓക്കേ ഈ ബാൻഡേയ്ടിലോ അങ്ങനെ ബാൻഡേജിട്ടാലോ അങ്ങനെ ശരിയാകും അല്ലെങ്കിൽ സ്റ്റീൽ റോഡോ അങ്ങനെ എന്തെങ്കിലും ഇടേണ്ടി വരും അതും അങ്ങനെ അതും ഇട്ടാലും പോരാ സ്റ്റീൽ റോഡ് ഇടുന്നതും ഇത് കാണാതെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് രണ്ടാമത് അത് നേരെ ആയപാടെ രണ്ടാമത് അത് ഓപ്പറേഷൻ ചെയ്തിട്ട് അതെടുക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെ പ്ലാസ്റ്ററിട്ട് ചില നമ്മൾ കൂടുതൽ ഇതാക്കുക എന്തെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കുറച്ച് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളു പറയാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതേപോലെ പണ്ടത്തെ കാലത്തെല്ലാം ഈ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ട് പോകാറില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മള നാട്ട് ചികിത്സ അങ്ങനെയെല്ലാം പറയലുണ്ട് എന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സ നാട്ട് ചികിത്സ അങ്ങനെയെല്ലാം ചെയ്യലുണ്ട് ചെറിയ ചെറിയ ഒടിവോ അതെല്ലാം എങ്കിൽ നമ്മൾ ഇങ്ങനെ ആയുർവേദത്തിൻ്റെ വൈദ്യരടുത്ത് കൊണ്ട് പോയിട്ടാകുമ്പം അവർ അതിൽ കെട്ടി വെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വരച്ചിലെന്നു പറഞ്ഞൊരു സാധനം ഇട്ട് അതിങ്ങനെ കെട്ടി വെച്ചിട്ട് കാലനക്കാണ്ട് എത്രയോ അവർ പറയുന്ന സമയത്താണ് കഷായങ്ങൾ കുടിച്ച് അവർ ആ പച്ചമരുന്നെല്ലാം കാലിൽ വെച്ച് അതെന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കുന്നതാന്ന് പക്ഷേ അതെടുക്കുന്ന അത്ര റിസ്ക്കില്ലാത്ത പണിയാന്ന് കാരണമെന്ന് പറഞ്ഞാൽ ആയുർവേദം നല്ലതാന്ന് സ്ലോ ആണ് പക്ഷേ നമ്മൾ തടിക്കും അത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൽ ആയുർവേദമെന്ന് നമ്മളിപ്പം ഒടിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടു പോയാൽ അവർ ഇംഗ്ലീഷ് മരുന്നും അതും വയറിനും കിഡ്നിക്കെല്ലാം അതും പ്രശ്നമാണ് പക്ഷേ ഇതിന് അങ്ങനെ അല്ല ആയുർവേദമെന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഒരു ദോഷവും വരാത്ത ഒരു ഇതാകും പണ്ട് കാലത്ത് അതും മാത്രമല്ല ഈ തിരുമ്മലിലൂടെ കാലെല്ലാം ഇങ്ങനെ ഒടിഞ്ഞാൽ നേരെ ആക്കുന്നൊരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒടിഞ്ഞാൽ ഒക്കെ അവർ തിരുമ്മി ആ സ്ഥാനം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോരോ ഒടിവെന്നല്ല നമ്മുടെ എല്ലുകൾ സ്ഥാനം തെറ്റിയാലോ അല്ലെങ്കിൽ അത് കുറച്ച് ഇത് ഇങ്ങനെ ചെറിയ ഒരു പൊട്ടലോ അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ ഇവർ തിരുമ്മുക മരുന്ന് വെക്കുക അല്ലാതെ അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഇതാകാറുണ്ട് പിന്നെ ഇപ്പോൾ അങ്ങനെ അല്ല ഇപ്പോൾ സാധാരണ എല്ലാവരും ഹോസ്പിറ്റലിലാണ് കൊണ്ട് പോകാറ് കൊണ്ട് പോകുമ്പോഴും അങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളു പറയാൻ